നമ്മുടെ കുട്ടികൾ കൂടുതൽ മൊബൈൽ സ്ക്രീൻ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ടി വി സ്ക്രീനുകളിലൂടിങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്ട്ടൂണുകള് അതുമിതും കാണുമ്പോൾ കുട്ടികളുടെ കായിക വിനോദം കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാക്സിം മിനി നമ്മളൊരു കൂടുതൽ നമ്മൾ പുറത്തോട്ട് ഇറക്കിവിട്ട് പിള്ളാരെ കളിപ്പിക്കാൻ നോക്കുക നമ്മളിങ്ങനെ കളിപ്പിക്കുന്നോടെ കൂടെ നമ്മൾ മാതാപിതാക്കളും കൂടെ കളിക്കാനായി ശ്രമിക്കുക ഇല്ലേൽ കുട്ടികൾ ഓരോ മൊബൈൽ സ്ക്രീൻ ടി വി സ്ക്രീനുകളിലൂടിങ്ങനെ നോക്കി നോക്കിയിരുന്ന് കുട്ടികളുടെ കായിക വിനോദത്തിന് വിനോദത്തിന് കുഴപ്പങ്ങൾ വരാനും അങ്ങനത്തെ കുറേ സാദ്ധ്യതകൾ വരാനും സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ പേര് അത് നമ്മള് ശ്രദ്ധിക്കാറില്ല കുട്ടി ഓരോ കുട്ടികളെയും മൊബൈലിൻ്റെ സ്ക്രീൻ അല്ലാതെ ടി വിയുടെ സ്ക്രീൻ അതൊക്കെ ഇങ്ങനെ കാണിച്ച് ഓരോ കാർട്ടൂണുകളൊക്കെ ഇട്ട് കാണിച്ച് ഗെയിംസുമൊക്കെ ഇട്ടുകൊടുത്ത് നമ്മളിങ്ങനെ നില്ക്കുകയാണ് ചെയ്യുന്നത് ബട് അത് നമ്മൾ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കായിക വിനോദത്തെ അത് ബാധിക്കുകയും പിന്നെ കുട്ടികളുടെ എന്താണ് സ്ട്രെങ്തിനെയും ബലത്തിനെയും ബാധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ബട്ട് നമ്മൾ ഓരോത്തരും നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കാനും അതിനുശേഷം നമ്മൾ അവരെ പുറത്തോട്ടിറങ്ങി കളിപ്പിക്കുക കളിപ്പിക്കുവാനും നമ്മൾ നമ്മൾ മുന്നേറുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കുട്ടികളിങ്ങനെ മന്ദബുദ്ധികളെപ്പോലെ ചിലപ്പോൾ ആയി വരാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞുവരുന്നത് അതാണ് നിങ്ങൾ മറ്റു കുട്ടികൾ കൂടുതൽ പുറത്തോട്ടിറങ്ങി മാക്സിമം കളിപ്പിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ കുട്ടികൾ ഒരു വീടിന്റെ അകത്തിരുന്ന് ടി വിയും കണ്ട് മൊബൈലിലും കളിച്ച് ഇങ്ങനെ ഓരോ ടി വി സ്ക്രീനില് അതിലും ഇതിലുമിതിലും കളിച്ച് ഇങ്ങനെ ഇതാവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമ്മള് കുട്ടികളെ പുറത്തോട്ടിറക്കി കളിപ്പിക്കാൻ നോക്കുക ഇല്ലേൽ കുട്ടികൾ മൊബൈൽ സ്ക്രീൻ ടി വി സ്ക്രീൻ അങ്ങനത്തെ ഓരോരോ ഇതിലൂടെ ഇങ്ങനെ കണ്ട് കളിച്ച് കളിച്ച് കളിച്ച് അങ്ങനെ ഓരോ രീതിയിൽ മന്ദബുദ്ധികളെപ്പോലെ ഒഫ്കോഴ്സ് ഇങ്ങനെ ഒരു രീതി ഇങ്ങനെ ആയി വരാനാണ് സാധ്യത അങ്ങനെ ആവുകയാണേൽ ആ തെറ്റ് നിങ്ങളെ മാതാപിതാക്കളുടെയാണ് അതിന് അതുകൊണ്ട് നിങ്ങൾ മാക്സിം ശ്രദ്ധിക്കുക കുട്ടികളെ മൊബൈലോ ടി വി സ്ക്രീനോ മാക്സിമം ഒരു ടൈം വെച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണ്ടത് അല്ലാതെ നിങ്ങളിങ്ങനെ എപ്പഴുവെപ്പോഴുവിങ്ങനെ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലിരുത്താനോ അല്ലാതെ മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിലിരുത്താനോ അങ്ങനെ നിങ്ങൾ നോക്കരുത് ഓക്കേ ഇല്ലെങ്കിൽ നിങ്ങള്ക്ക് ഭാവിയിൽ അവർക്കത് ദോഷം ചെയ്യും അല്ലേ ഭാവിയിലത് ദോഷം ചെയ്യും ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുട്ടികളെ പുറത്തിറങ്ങി കളിപ്പിക്കാൻ നോക്കുക ശരി അന്നേരം